എൻ്റെ കോളേജ് കാലഘട്ടത്തിലാണ് ഞാൻ സ്കൂൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ടൂർ പോകുന്നത് കന്യാകുമാരി തിരുവനന്തപുരം അങ്ങനെയുള്ള ര രണ്ടു മൂന്നു സ്ഥലങ്ങളിലാണ് പോയത് രണ്ടു രാത്രിയും മൂന്നു പകലും ആയിരുന്നു ആദ്യമായി വീട്ടിൽനിന്ന് ഒരു വേറൊരു സ്ഥലത്തേക്ക് വിട്ടു നിന്ന അനുഭവമായിരുന്നു എനിക്ക് അത്ഭുതവും അമ്പരപ്പും സന്തോഷവും എല്ലാം ചേർന്നിട്ടുള്ള ഒരു അനുഭവം ആയിരുന്നു ആ ഒരു യാത്ര പുതിയൊരു അനുഭവം തന്നെ എനിക്ക് ഉണ്ടായി നല്ല സ്ഥലങ്ങൾ കാണാൻ പറ്റി കുറെ പേരെ എൻ്റെ കൂട്ടുകാരുമായി കൂടുതൽ അടുക്കാൻ പറ്റി അങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങളാണ് ആ ടൂർ പോയ യാത്രയ്ക്ക് യാത്ര പോയി ഉള്ള അനുഭവം